ഓക്കെ ഓക്കെ നമുക്ക് ബ്രേക്ഫാസ്റ്റിനാണെങ്കിൽ ഇവിടെ അപ്പം ഉണ്ട് പിന്നെ നൂൽപുട്ട് പിന്നെ പുട്ട് പുട്ട് ഫേയ്മസ് ആണ് കേരളത്തിൻ്റെ പുട്ടും കടലക്കറിയും അപ്പോൾ പിന്നെ നമുക്ക് നോൺ വെജ്ജും വെജ്ജും ആവൈ പിന്നെ നമുക്ക് ആ എങ്ങനെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് അനുസരിച്ച് നമുക്ക് അത് ചെയ്ത് തരാൻ പറ്റും പിന്നെ ഉച്ചക്കാണെങ്കിൽ നമുക്ക് പിന്നെ ലഞ്ചിന് ഇപ്പം സദ്യയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സദ്യ ആക്കാം പിന്നെ ബിരിയാണി പിന്നെ നെയ്ച്ചോറ് ഇറച്ചിച്ചോറ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എന്താണോ ഇഷ്ടപെടുന്നത് അതിനനുസരിച്ച് നമ്മളിവിടെ പ്രിപ്പെയർ ചെയ്ത് അപ്പം തന്നെ പ്രിപ്പെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഏത് ഒരു സമയത്തെ ആണ് അതായത് ലഞ്ച് ആണോ ബ്രേക്ഫാസ്റ്റ് ആണോ ഡിന്നർ ആണോ നിങ്ങളുദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെയിപ്പം ഇങ്ങനെയാണ് ഇപ്പം ഡിന്നറിനാണെങ്കിൽ നമുക്ക് പിന്നെ ചപ്പാത്തിയുണ്ട് പൊറോട്ട പൊറോട്ടയും ബീഫൊക്കെ ആ ഓക്കെ ഓ സീഫുഡ് എല്ലാമുണ്ട് കേട്ടോ അ ഓക്കെ ഓക്കെ എല്ലാമുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രിപ്പെയർ ചെയ്ത് തരും എങ്ങനെയാണ് പ്രിപ്പെയർ ചെയ്യേണ്ടത് റോസ്റ്റ് ആണോ അതോ ഇപ്പം ചാറായിട്ടാണോ ഇതാക്കേണ്ടത് അതോ വറുക്കണെമെങ്കിൽ വറുക്കാം നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ അപ്പം തന്നെ പ്രിപ്പെയർ ചെയ്യും നിങ്ങൾ പറഞ്ഞാൽ മതി എന്ത് ഇഷ്ടത്തിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് തന്നാൽ മതി

ഓക്കെ ഇവിടെ മെനു ആൾറെഡി നമുക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം എന്താണ് രാവിലെ ഇപ്പം ബ്രേക്ഫാസ്റ്റിന് എന്താണ് ലഞ്ചിന് എന്താണ് ഡിന്നറിന് എന്താണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് പ്രിപ്പയർ ചെയ്തു തരും ഓക്കെ